ഹലോ ഗാലക്സി സ്റ്റുഡിയോ അല്ലേ ആ ഞാൻ എന്റെ പേര് ആര്യ എന്നാണേ എൻറെ ഒരു എൻഗേജ്മെന്റ് കളർ ഫോട്ടോക്ക് ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ഫ്രീ ആണോ ഡേറ്റ് വന്നിട്ട് മുപ്പതാം തീയതി ആണേ നിങ്ങൾക്ക് ആ ആ ഫ്രീ യാ ഫ്രീ ആണോ നിങ്ങൾ ഫോട്ടോ കവർ എടുക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ സെൻറ് മേരീസ് ചർച്ച് തേക്കുപാറയാണേ അപ്പോൾ ആ നിങ്ങൾ ഫ്രീ ആണോ അന്ന് എടുക്കാൻ പറ്റുമോ അപ്പോൾ ആ നിങ്ങൾ ഫ്രീ ആദ്യം കുറേ ഞങ്ങളുടെ സിംഗിൾ ഫോട്ടോസ് വേണം ആദ്യം എന്റെ സിംഗിൾ ഫോട്ടോസ് പിന്നെ എന്റെ എന്റെ ഫിയാൻസി ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് വേണം പിന്നെ ഞങ്ങൾക്ക് ഇവർ തിരക്കായിരിക്കും അപ്പോൾ ഫാമിലി ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് തരണം നല്ല നല്ല ഹൈ എച്ച് ഡി ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് ആയിരിക്കണം പിന്നെ ഞങ്ങൾക്ക് അതിൽ സി ഡി ചെയ്തുതരണം ഞങ്ങൾ പെൻഡ്രൈവിലാക്കി ഒരു വീഡിയോ ചെയ്ത് തരണം പിന്നെ ഞങ്ങൾക്ക് പിന്നെ വേണ്ടത് ആൽബം അറിയാമല്ലോ ആൽബം പിന്നെ ഞങ്ങൾക്ക് അതിൽ തന്നെ ഫോട്ടോ ഫ്രെയിംസ് അങ്ങനെ എല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് ത്രീ ഡി

ഒരു മോർണിങ്ങ് ഒരു ഒരു എയ്റ്റ് തേർട്ടി ആവുമ്പോൾ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ ഞങ്ങൾ എന്റെ വീടിൻറെ അടുത്താണ് പള്ളി വന്നിട്ട് അപ്പോഴേക്കും ഒരു എയ്റ്റ് തേർട്ടി ആവുമ്പോൾ എന്റെ വീടിൻറെ അടുത്ത് ആദ്യം ഒരു ഫോട്ടോഷൂട്ട് പിന്നെ അത് കഴിഞ്ഞ് പള്ളി അപ്പം ഒരു ഒരു രണ്ടരയോടുകൂടി ഫംഗ്ഷൻ കഴിയും അപ്പോൾ രണ്ടര ആ അതെ പിന്നെ രണ്ട് എൻഗേജ്മെന്റ് ഫംഗ്ഷന് മുന്നെയാണ് പിന്നെ അതിന് മുന്നേ ആയിട്ട് സേവ് ദ ഡേറ്റിന് വേണ്ടി ഇത്തിരി പിക്ക് എടുക്കണം അപ്പോൾ നല്ലൊരു പ്ലേസ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരു മലയുണ്ട് പൂണിച്ചിമല അപ്പോൾ അവിടെ ഇങ്ങനെ പോയാലോ എന്ന് ഞങ്ങൾ വിചാരിക്കുവാണ് അപ്പോൾ ഇത്തിരി ട്രക്കിങ്ങ് ഒക്കെ ഉണ്ട് അപ്പം അത് കുഴപ്പം ഇല്ലല്ലോ ആ ഞങ്ങൾ ഐ ഡി ഇട്ടോളാം ആ നിങ്ങളുടെ ഐഡിയ ഇട്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ എന്റെ ഫിയാൻസി ഇടയ്ക്കിങ്ങനെ കുറച്ച് അതായത് ചെറിയ ഐഡിയ പറഞ്ഞ് തന്നതാണ് അത് ഞാൻ വാട്ട്സാപ്പ് ചെയ്തേക്കാം നിങ്ങൾ അന്ന് ഫ്രീ ആണല്ലോ ആ ഓക്കെ പിന്നെ പിന്നെ എന്ത് പറയാനാണ് നല്ല ആ റിംഗ് ഇടുന്നില്ലേ അത് നല്ല കറക്റ്റ് നല്ല എച്ച് ഡി ക്വാളിറ്റി ആയിരിക്കണം ആ റിംഗ് മാത്രമായിട്ട് പേയ്മെന്റ് എത്രയാണ് വരുന്നത് ഒരു ടു ടു ആൻഡ് ഹാഫ് അവേഴ്സ് എത്ര അയ്യോ എത്ര അവേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഒരു ടെൻ അവേഴ്സിന് എത്രയാണ് നിങ്ങൾ വരുന്നത്

അറിയിക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ എന്റെ ഫിയാൻസിയോട് സംസാരിച്ചപ്പോൾ പുള്ളിക്കാരൻ ആണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ ഇത് ഗാലക്സി ഫോട്ടോ ഫോട്ടോ ഷോപ്പിന് തന്നെ ഇത് ഇങ്ങനെ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ എന്റെ ഫിയാൻസിയുടെ ആഗ്രഹം ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തരുന്നത് നല്ല വർക്ക് ഇങ്ങനെ നല്ലവണ്ണം ചെയ്ത് തരണം ആ ആ പിന്നെ സ്ഥലം ഓർമ്മയുണ്ടല്ലോ തേക്ക് തേക്കുപാറ സെൻറ് മേരീസ് ചർച്ച് തേക്കുപാറ ഓക്കെ ആ ഓക്കെ

ആ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യു ആ ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാം പറഞ്ഞത് പോലെ മുപ്പതാം തീയതി